ആ ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ഒന്ന് പറഞ്ഞു തരുമോ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളത് ആ ഓക്കെ ട്രക്കിംഗ് ഒക്കെ എവിടെയാണ് വരുന്നത് ട്രക്കിംഗ് ആയിട്ടുള്ളത് ആ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പം

എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ആ ഓക്കെ ആ ഓക്കെ ഫുൾ ഫാമിലി ഉണ്ട് ആ ചെറിയ മക്കളൊക്കെ ഉണ്ട്

ആ ഓക്കെ